മൃഗങ്ങളെ നമ്മളിപ്പോള് വളർത്തുന്നെന്ന് പറഞ്ഞാല് നമ്മള് അത് സാമ്പത്തികം ഉണ്ടാക്കാനായിട്ട് വേണ്ടി വളർത്ത നമ്മള് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അല്ലേ എനിക്ക് മൃഗങ്ങളെ വളർത്തിയാൽ എനിക്ക് പട്ടിയെ വളർത്തി ആടിനെ വളർത്തിയാല് കോഴിയെ വളർത്തി ഇങ്ങനെ നമ്മുക്കതുകൊണ്ട് ഭയങ്കര ധനമുണ്ടാക്കാം എന്നുള്ള രീതിയിൽ നമ്മള് വളർത്തരുത് നമ്മള് നമ്മൾക്ക് നമ്മുടെ വീട്ടില് ഒരംഗത്തെ പോലെ നമ്മള് അവര് അവരെ നോക്കുകയും പരിപാലിക്കുകയും അവരുടെ കൂടുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇടുകയും അവര് അവരുടെ കൂടും പരിസ പരിസരം ഒക്കെ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം ഈച്ചകളെ അല്ലാത്ത ഈ ജീവികളൊക്ക വന്നവർക്ക് പെട്ടെന്ന് അസുഖം വരാനും അങ്ങനൊക്കെ ഉള്ള ഇതൊന്നും നമ്മള് അവസരങ്ങള് കൊടുക്കരുത് എപ്പോഴും അവരെ കുളമ്പോക്കെ നമ്മള് നല്ല മൃഗങ്ങളുടെയും ആടിൻറ്റെയൊക്കെ പട്ടിയുടെയൊക്കെ ആണേല് അവരുടെ കാലും കയ്യും ഒക്കെ നമ്മള് വെള്ളം കഴുക് ഓസിട്ട് കഴുകും നല്ലായിട്ട് അടിച്ച് നല്ല വൃത്തിയാക്കണം അതുപോലെതന്നെ അതിൻറ്റെയൊക്കെ കൊളമ്പോക്കെ നമ്മള് ഒത്തിരി ചെളിയുള്ള സ്ഥലത്തൂടൊന്ന് ഇവരെ നടത്തി അവരുടെ കുളമ്പിന്നകത്ത് ഇങ്ങനെ ചെളി കയറിയിരിക്കാനും കുളമ്പ് രോഗമൊന്നും വരാനൊന്നും നമ്മള് നമ്മളെങ്ങനെ മൃഗങ്ങളെ നോക്കുന്നു സംരക്ഷിക്കുന്നു നമ്മടെ പരിസ്ഥിതി നമ്മളത് അവര് വസിക്കുന്ന ഇടം അവരുടെ കൂടിരിക്കുന്നിടമൊക്കെ നമ്മള് എങ്ങനെ വൃത്തിയായിട്ട് നോക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മള് അവര് അവരുടെ അവര് വളർത്തുമ്പോഴല്ലാതെ ഇതുങ്ങളെ ഒരിക്കലും സാമ്പത്തികം ഓർത്ത് നമ്മള് വളർത്തരുതെ അല്ലാതെ നമ്മുക്ക് നമ്മുക്ക് അതൊരു ഇതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഒരു വലിയ അനുഗ്രമായിട്ട് നമ്മളിവരെ വളർത്താം വളർത്തുമ്പോള് അതിൽ നിന്നും നമുക്ക് ഒത്തിരി ഒത്തിരി ന ഉപകാരങ്ങളും നന്മകളും ഒക്കെ നമുക്ക് കിട്ടും കാരണം എന്നാന്ന് ചോദിച്ചാല് മൃഗങ്ങളൊക്കെ വീട്ടുകളിൽ ഉള്ളതൊക്കെ നല്ല ഒരിതാണ് പക്ഷെ പരിസ്ഥിതി അവരുടെ അതുപോലെ നമ്മള് ആഹാരം കൊടുക്കുന്നതൊക്കെത്തന്നെ ആണെങ്കില് നല്ല വൃത്തിയായിട്ടുള്ളതും അവർക്ക് ദഹനം ഇങ്ങനെ ഒത്തിരി കൊടുത്ത് കഴിയുമ്പോള് ദഹനക്കേടുകളൊക്കെ ഉണ്ടാകും ദഹനക്കേട് ഉണ്ടാകുമ്പോഴത്തേനും നമ്മള് അത് ശ്രദ്ധിച്ച് വേണം അവർക്കാഹാരം വലിച്ചുവാരിയുള്ള ഒന്നും കൊടുക്കു എടുക്കു ഒന്നും ചെയ്യരുത് അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊന്നും കണ്ടാല് നമ്മള് പെട്ടെന്ന് അവരെ നമ്മള് മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി അല്ലെങ്കില് ഡോക്ടറോട് ചെന്ന് വിവരം പറഞ്ഞ് നമ്മള് മരുന്ന് മേടിച്ച് അവർക്ക് കൊടുത്ത് അവരുടെ ജീവൻ നമ്മള് നമ്മള് ഒരിക്കലും നമുക്ക് ആദായത്തിനുവേണ്ടി നമ്മള് വളർത്തരുത് നമ്മുടെ ജീവനെപ്പോലെ ഒരു ജീവനായി നമ്മള് കരുതുമ്പോള് നമ്മുക്കതിൽനിന്നും നൂറുമേനി ഫലം തമ്പുരാൻ തരും